ആ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു ഇവിടെ പൈപ്പ് കംപ്ലൈന്റായിട്ട് കിടക്കുകയാണ് ആ ആ പൈപ്പിൽ ഒരു ലീക്കുണ്ട് അത് ബ്ലോക്കായിട്ട് കിടക്കുകയാണെന്നു തോന്നുന്നു എന്താണെന്നറിയില്ല ഒന്നു നോക്കിയിട്ട് ശരിയാക്കാം ആ മോട്ടോർ കണക്ഷനുള്ളതാണ് ആ അതിന്റെ അടിയിൽ തന്നെ ആ ബാക്കിയുള്ളതിലൊക്കെയുണ്ട് ഇതിലാണ് വരാത്തത്

ആ ആ റെഡി മാറ്റേണ്ടി മാറ്റേണ്ടി വരുവോ അപ്പോൾ ഇന്നുതന്നെ മാറ്റുമോ അതു കുറേയായി ഒരു മൂന്നാലുകൊല്ലമായി വണ്ടി ഇടയ്ക്ക് പോകാറുണ്ട് ആ കല്ലിവിടെ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അന്ന് രണ്ടുവർഷം

ഇല്ലില്ല ഇവിടെ മാത്രേയുള്ളൂ

അല്ല നിങ്ങൾ വാങ്ങിക്കോളൂ നമ്മൾ പൈസ തരാം ഇന്നുതന്നെ ചെയ്യാം ഇന്നോ നാളെയോ ആയിട്ട് ചെയ്യുമോ ആ അതൊക്കെ കുഴപ്പമില്ല അതിപ്പോൾ റെഡിയായി ആ അപ്പോൾ ആ ശരിയെന്നാൽ